ഓൺലൈൻ തട്ടിപ്പുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് തട്ടിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ കോളുകൾ ഇതുപോലെയുള്ള നമ്മളറിയാത്ത നമ്പറിൽ നിന്ന് ഇപ്പം ഇങ്ങനെ ലോൺ തരാം വളരെ കുറഞ്ഞ പലിശ നിരക്കേ ഉള്ളൂ അങ്ങനെ ഒക്കെ പറഞ്ഞിട്ട് കുറേ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കത് ആവശ്യമില്ല അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് ഓൺലൈൻ തട്ടിപ്പാണോ ബാങ്ക് തട്ടിപ്പുകളൊക്കെ ഒഴിവാക്കാനായിട്ട് എന്താണ് പറയുന്നത് ഇപ്പം നമ്മുടെ ഒരു പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയപ്പെടാത്ത നമ്മൾ അറിയാത്തൊരു വ്യാജ ഈമെയിൽ ഐ ഡിയിൽനിന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മെസേജ് വരുവാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യാതിരിക്കുക നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒ ടി പി വന്നിരിക്കുന്ന ഒ ടി പി ഒന്നും നമ്മളവരോട് ഷെയർ ചെയ്യാതെ ഇരിക്കുക പിന്നെ ഒരു തട്ടിപ്പ് നടക്കുന്ന വേറെ മേഘല എന്ന് ഇപ്പം നമ്മളൊരു പൊതു ചാർജിങ്ങ് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അവിടെ നമ്മുടെ ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോൺ ഒക്കെ കുത്തിയാണ് നമ്മൾ എൽ ഡീറ്റെയിൽസും ഇപ്പം ഫോണിൽ ലാപ്ടോപ്പിൽ നമ്മൾ സേവ്ഡ് ആയിരിക്കും അപ്പം അങ്ങനെ കുത്തിയിടുമ്പോൾ അത് അതിൽക്കൂടി അവർ എന്തെങ്കിലുമൊരു കൃത്രിമത്വം കാണിച്ചിട്ട് ഈ ഡീറ്റേയ്ൽസ് മുഴുവൻ അവർ ആരാണോ ആരാണോ അത് ഇതിൽ മാൻട് ഇത് ചെയ്യാനുദ്ദേശിക്കുന്ന ആൾ അവരുടെ ഡിവൈസിലോട്ട് ട്രാൻസ്ഫർ കോപ്പി ചെയ്യപ്പെടും സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള ചാർജിങ്ങ് സ്ഥലങ്ങളൊക്കെ നമ്മൾ കഴിയുന്നതും പഴ പരമാവധി ഒഴിവാക്കുക അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമ്മുടെ ഈ ഡിവൈസ് ഒന്നും നമുക്ക് പുറ വളരെ ദൂരത്തിൽ നിന്നുതന്നെ ഒരു വേറെ ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മുടെ ഉള്ള ബാങ്ക് അക്കൌണ്ട് ഡിറ്റെയിൽസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം അങ്ങോട്ട് കോപ്പി ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് കഴിയുന്നതും ഇങ്ങനെയുള്ള ചാർജിങ്ങ് സ്ഥലങ്ങൾ ഒഴിവാകെകെ പിന്നെ ഇപ്പോൾ വേറൊരു തട്ടിപ്പ് കൂടുതലായിട്ട് നടക്കുന്നത് ഗൂഗിൾ പേ ഫോൺപേ അതിലൊക്കെയാണ് നമ്മൾ കഴിയുന്നതും അതൊക്കെ ചെയ്യുമ്പം ഒന്ന് ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക നമ്മുടെ ഒക്കെ കോണ്ടാക്റ്റിലുള്ള ഒരു പേഴ്സൺ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മുടെ കോണ്ടാക്ടിലുള്ള വ്യക്തിയാണ് നമുക്കറിയാം അപ്പോൾ അതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പേമെന്റ് നടത്തുക പിന്നെ പറയാൻ പിന്നെ വരുന്നത് ഇതുപോലെ വരുന്ന ഫോൺ കോളുകൾ അതായത് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ സാമ്പത്തിക സഹായങ്ങൾ ലോണുകൾ തരാം അങ്ങനെ അപ്പം അതിൻ്റെ പേമൻറുകൾ വളരെ എന്തുന്നാണ് അതിൻ്റെ തവണ വ്യവസ്ഥകൾ വളരെ ലളിതമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കോളുകൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കോളുകൾ വരുമ്പോൾ നമ്മൾ കഴിയുന്നതും ഇപ്പം ഏതെങ്കിലുമൊരു ബാങ്കിൻ്റെ ഏജന്റ് ആണ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റൂ ഫിനാൻഷ്യൽ സ്ഥാപനത്തിൻ്റെ ഏജന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ വിളിക്കുന്നത് അപ്പം ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ജെന്യൂയിൻ ആണോ അവർ അങ്ങനെ ശരിക്കുള്ള വ്യക്തികളാണോ അല്ലെങ്കിൽ ലീഡിങ്ങ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്ഥാപനം തന്നെയാണോ എന്നൊക്കെ ഒന്നുറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ അതിന് മുന്നോട്ട് പോവുക പിന്നെ ചിലപ്പം അവർ ചോദിക്കുമ്പം തന്നെ നമ്മൾ അതിനുള്ള ഡൗൺ പേയ്മെൻറുകൾ കുറച്ച് സെക്യൂരിറ്റി ആയിട്ട് കുറച്ച് പൈസ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടാവും അപ്പം അങ്ങനെയുള്ള തട്ടിപ്പുകളൊന്നും അങ്ങനെ അങ്ങനെയൂള്ള ഡൗൺ പേയ്മെൻറുകൾ ഒക്കെ കൊടുക്കാതിരിക്കുക പിന്നെ അതുപോലെ എന്തെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് ആവശ്യപ്പെടുവാണെങ്കിൽ അതൊന്നും കൊടുക്കാതിരിക്കുക പിന്നെ എല്ലാം നമ്മളെ എന്ത് കാര്യമായാലും സാമ്പത്തിക ഇടപാടുകളാണ് അപ്പം നമ്മളൊന്ന് രണ്ട് വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക കഴിയുന്നതും ഓൺലൈൻ ആയിട്ടുള്ള പേയ്മെ എൻ്റെ ഒരഭിപ്രായത്തിലെനിക്ക് തോന്നുന്നു എപ്പോളും നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റിനേക്കാളും നല്ലത് ക്യാഷ് പേയ്മെൻറുകളാണ് തന്നെയാണെന്നാണ് എൻ്റെ ഒരിതിൽ പറയുകയാണ് കാരണം നമ്മൾ നേരിട്ട് കൊടുക്കുമ്പം നമുക്ക് അത്ര ഇത് വരുന്നില്ലല്ലോ ഇതിപ്പം ഓൺലൈൻ ആവുമ്പോൾ നമ്മൾ അകലത്തിൽ ഇരിക്കുന്ന വ്യക്തിക്കാണ് പേയ്മെൻറുകൾ ഇടുന്നത് അപ്പം അങ്ങനെയുള്ള പേയ്മെൻറുകൾ ഒക്കെ കഴിയുന്നതും ഒഴിവാക്കിയിട്ട് ഫേസ് ടു ഫേസ് പേയ്മെൻറുകൾ ഒക്കെയാണെങ്കിൽ നല്ലതാണെന്നാണ് എൻ്റെ ഒരഭിപ്രായം അപ്പം കഴിയുന്നതും ആരും ഓൺലൈൻ തട്ടിപ്പിനൊക്കെ ഇരയാവാതിരിക്കട്ടെ